ചിത്രം വരച്ച് തുടങ്ങുന്നവർക്കോ തുടങ്ങുന്നവർക്കും തങ്ങളുടെ കഴിവുകൾ മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർക്കോ ഉപദേശിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ചിത്രം വരച്ച് തുടങ്ങുക ചിത്രം വരച്ച് വരച്ച് തന്നെ വരച്ചാൽ തന്നെയാണ് റെഡി ആവുകയുള്ളു പിന്നെ വരച്ച് വരച്ച് അങ്ങ് ആയിപ്പോ ആകുമ്പോൾ റെഡി ആയിക്കോള്ളും പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ ആരെയൊക്കെ നമ്മളെ കുറേപ്പേർ തളർത്താനൊക്കെയുണ്ടാകും ചിത്രം വരച്ചാൽ റെഡി ആകില്ലാ നീയൊക്കെ എന്ത് കാട്ടാനാണ് ചിത്രം വരച്ചിട്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഒരുപാട് ആക്ഷേപിക്കുന്നവർ നമ്മളെ തളർത്തുന്നവരൊക്കെ ഒരുപാടുണ്ടാകും എന്നാൽ നമ്മൾ അതിലൊന്നും വീഴരുത് നമ്മൾ നമുക്ക് പറ്റും എന്ന് നമ്മുടെ മനസ്സിനൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ചിത്രം വരച്ച് തുടങ്ങാൻ തുടങ്ങുകയാണെങ്കിൽ നമുക്കത് മുൻപോട്ട് നല്ലൊരു നല്ലൊരു വരക്കുന്നൊരാളായിട്ട് തന്നെ നമുക്ക് മാറാൻ പറ്റും പിന്നെയെന്ന് പറഞ്ഞാൽ ചിത്രം വരക്കാനൊക്കെ ഒരുപാട് സ്കെച്ചുകളാണെങ്കിലും ഒരുപാട് പെൻസിലുകൾ അങ്ങനെയുള്ള ആവശ്യങ്ങളൊക്കെയുണ്ട് പിന്നെയെന്ന് പറഞ്ഞാൽ പൈസേൻ്റെ അധികം വലിയ ആവശ്യങ്ങളൊന്നും ഇല്ല ആദ്യം ചെറിയ ചിത്രങ്ങളൊക്കെ വരച്ച് വരച്ച് പിന്നെ നമ്മൾ വലിയ ചിത്രങ്ങളൊക്കെ വരക്കുക ചെറിയ ആ ആന പൂച്ച അങ്ങനെയുള്ള മൃഗങ്ങളുടെ ചിത്രങ്ങളൊക്കെ വരച്ച് വരച്ച് പിന്നെ ഞമ്മള് മനുഷ്യന്മാ മനുഷ്യരുടെ ചിത്രങ്ങളൊക്കെ വരച്ച് തുടങ്ങുമ്പോളാണ് നമ്മൾ നല്ലൊരു ചിത്രം വരക്കുന്ന ആളായിട്ട് മാറുക